ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വികസനത്തിനും ഗ്രാമീണ ദരിദ്രരുടെ മെച്ചപ്പെട്ട ക്ഷേമത്തിനും മൂന്ന് കാർഷിക മേഖലയിലെ വെല്ലുവിളികൾ വെല്ലുവിളികൾ പ്രധാനമാണ് ഓരോ യൂണിറ്റ് ഭൂമിയിലും കാർഷിക ഉൽപാദന ക്ഷമത വർധിപ്പിക്കുക കൃഷിയോഗ്യമായ എല്ലാ ഭൂമിയും കൃഷി ചെയ്യുന്നതിനാൽ ഒരു യൂണിറ്റ് ഭൂമിയിൽ ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കാർഷിക വളർച്ചയുടെ പ്രധാന എഞ്ചിൻ ആയിരിക്കണം ജല സ്ത്രോതസ്സുകളും പരിമിതമാണ് ജല ശേഖരത്തിനുള്ള വെള്ളം വർധിച്ചു വരുന്ന വ്യാവസായിക നഗര ആവശ്യങ്ങൾക്കായി പൊരുത്തപ്പെടണം ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കും അതായത് നമുക്ക് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടില്ല ഏതെങ്കിലും തരത്തിലൊരു ക്ലൈമറ്റ് ചേയ്ഞ്ച് കാലാവസ്ഥ വ്യതിയാനം വന്ന് കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് നനയ്ക്കാനായിട്ടുള്ള ഒരു ജലം കിട്ടണം എന്നില്ല ഉല്പാദന ക്ഷമത വർധിപ്പിക്കുന്നതിനുള്ള എല്ലാ നടപടികൾക്കും ചൂഷണം ആവശ്യമാണ് അവയിൽ വിളവ് വർദ്ധിപ്പിക്കുക ഉയർന്ന മൂല്യങ്ങളുള്ള വിളകളിലേക്കുള്ള വൈവിധ്യ വത്ക്കരണം വിപണന ചിലവ് കുറയ്ക്കുന്നതിന് മൂല ശൃഖല വികസിപ്പിക്കുക ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുക പിന്നെ കൃഷിയും കാർഷികേതര തൊഴിലും ഉൾക്കൊള്ളുന്ന സാമൂഹ്യമായി ഉൾക്കൊള്ളുന്ന ഒരു തന്ത്രത്തിലൂടെ വേണം നമ്മൾ ഈ ഗ്രാമീണ ഇൻഡസ്ട്രി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം കൂടുതലും ഗ്രാമീണരായ ആൾക്കാരാണ് കൃഷി ചെയ്യുന്നത് അവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും ലോകപരിചയം നഗരവത്കരണം നഗരത്തിലേതായ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള അറിവുകൾ കുറവായിരിക്കും അപ്പം ഒരു ബാങ്ക് ഇടപാടുകൾ അല്ലെങ്കിൽ ദേ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമുകൾ അവർക്ക് കിട്ടാവുന്ന ലോണുകൾ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ അവർക്കുണ്ടാവില്ല അവർക്ക് അതിനായിട്ട് പ്രോപ്പർ ഗൈഡൻസ് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട ആൾക്കാർ തന്നെ അത് അവരുടേതായ രീതിയിലേക്ക് സ്വന്തം കീശയിലേക്ക് ഒരു അഴിമതി നടക്കുന്ന രീതിയിലേക്ക് കൊണ്ട് പോകുന്നു അതാണ് പ്രധാനമായിട്ടും പിന്നെ പിന്നെ അവർക്ക് അത്യാധുനിക സൗകര്യങ്ങൾ അത്യാധുനികമായ സൗകര്യങ്ങളോട് കൂടിയ ഒത്തിരി മെഷീൻസും കാര്യങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് വിത്ത് നടാനും വിതയ്ക്കാനും കൊയ്യാനും കീടങ്ങളെ ലഘൂകരിക്കാനും എല്ലാം അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പോൺസറിങ്ങ് സ്കീമോ അത് ചെറിയ വിലയിൽ ചെറിയ ലോൺ സ്കീമിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഉള്ളത് കൊടുക്കുക ആണെങ്കിൽ കുറച്ച് കൂടെ നല്ലതായിരിക്കും പിന്നെ ഇത് ഒരു സാങ്കേതിക സഹായം അവർക്ക് പ്രൊവൈഡ് ചെയ്യാം പിന്നേ സ്പെഷ്യലായിട്ട് ഓരോന്നിനും ചെറുകിട വ്യവസായകം നടത്തുന്ന ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം പ്രൊവൈഡ് ചെയ്യുക അതൊന്നും ഇല്ലാത്ത ഉണ്ടെങ്കിൽ പോലും അതൊന്നുമറിയാത്തതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്